പണ്ട് കാലത്ത് വെള്ളം അരിക്കാൻ ഒന്നും ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മഴയത്ത് നാല് തൂൺ മണ്ണിൽ താഴ്ത്തി വെച്ചിട്ട് അതിലൊരു തുണി കെട്ടിയിട്ട് അങ്ങനെയാണ് അരിച്ചിട്ട് മഴവെള്ളം എടുക്കും അത് ശുദ്ധമായ വെള്ളമാണല്ലോ അത്കൊണ്ട് അത് അരിച്ചിട്ട് എടുക്കും അതിലും പൊടിയെല്ലാം ഉണ്ടാവും എന്നാലും അത് അരിച്ചിട്ട് എടുക്കും ഇപ്പൊൾ ആണെങ്കിൽ അരിപ്പയും അത് ശുദ്ധികരിക്കുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട് അന്നത്തെ പോലെയല്ല ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമൊന്നും ഇല്ല കിണറ്റിലൊന്നും വെള്ളമില്ല നമ്മൾ പൈപ്പ് വെള്ളമാണ് കുടിക്കുന്നത് പഞ്ചായത്തിന്റെ വെള്ളമാണ് ഇപ്പൊൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിവെള്ളം കിട്ടാനൊന്നും ഇല്ല അത് കൊണ്ട് ഉള്ള കലക്ക വെള്ളവും അങ്ങനെയും ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കുടിക്കുന്നത് ചില വീട്ടിൽ എല്ലാം കുഴൽകിണർ അത് ഇതൊക്കെയുണ്ട് നമുക്ക് ഒന്നും ഇല്ല നമ്മൾ ഈ പഞ്ചായത്തിന്റെ വെള്ളമാണ് കുടിക്കുന്നത് കിണറ്റിൽ ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇല്ല കിണറെല്ലാം വറ്റി വരണ്ട് കിടക്കുന്നാണ് മഴയില്ല അത് കാരണം വെള്ളം ഒന്നും ഇല്ല അങ്ങനെയാണ് ശുദ്ധമായ വെള്ളം ഒന്നുമല്ല ഇപ്പൊൾ കിട്ടുന്നത് നമുക്ക് പഞ്ചായത്തിന്റെ പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതാണ് ഞങ്ങൾ കുടിക്കുന്നത് അത് ശുദ്ധീകരിച്ച് വരുന്നുണ്ട് എന്ന് പറയുന്നു ശുദ്ധി ശുദ്ധീകരിച്ചിട്ടാണോ വരുന്ന് എന്നൊന്നും നമുക്കറിയില്ല ആ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്